ഞാൻ പോകോ എം ത്രീ എന്ന് പറയുന്ന ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് നന്നായിട്ട് ചാർജ് നിൽക്കും ഒരുപാട് സമയം ചാർജ് നിൽക്കും അതുപോലെ അതിന്റെകൂടെ തന്നെ ഒരു ചാർജറും അവൈലബിൾ ആയിരുന്നു അതുപോലെ അതിന്റെ മെമ്മറി സ്പേസ് കൂടുതൽ ആയതുകൊണ്ട് തന്നെ മെമ്മറി കാർഡിന്റെ ആവിശ്യം വരുന്നില്ല പിന്നെ ഉപയോഗിക്കാനും യൂസ്ഫുൾ നന്നായിട്ട് യൂസ്ഫുൾ ആണ് നമുക്കെവിടെയും കൊണ്ടു നടക്കാനും പറ്റും